മുട്ട് വേദന വന്നാൽ സാധാരണ എൻ്റെ ഗ്രാമത്തിൽ ഒക്കെ തൈലം ഒഴിച്ച് മുട്ട് മസാജ് ചെയ്യാണ് ചെയ്യാറ് തൈലം ഒഴിച്ച് തടവുക എന്ന് പറയും അത് പാരമ്പര്യമായിട്ട് കാര്ന്നോമ്മാർ കണ്ടുപിടിച്ച മരുന്നുകളും പൊടിക്കൂട്ടുകൾ ഒക്കെ വെച്ച് ചേർത്ത് തൈര് നിർമ്മിച്ച് അത് വെച്ച് പുരട്ടുകയാണ് ചെയ്യുക ഇനി അങ്ങനെ പുരട്ടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇടിഞ്ഞിൽ എന്ന വൃക്ഷം വൃക്ഷത്തിൻ്റെ തൊലി ചെത്തി എടുത്ത് അത് ചതച്ച് കോഴി മുട്ടയുടെ വെള്ള ഭാഗം ചേർത്ത് മിക്സാക്കി അത് പുരട്ടി വെക്കുകയാണ് ചെയ്യാറ് അതാണ് സാധാരണ എൻ്റെ ഗ്രാമത്തിലൊക്കെ മുട്ട് വേദന ക്ഷമിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് തൈലം പുരട്ടുക അല്ലെങ്കിൽ ഈ ഇടിഞ്ഞില നക്ഷത്ര വൃക്ഷത്തിൻ്റെ തൊലി ചെത്തി വെക്കുക എന്നതാണ് ചെത്തി അരച്ച് തേക്കുക എന്നതാണ് സാധാരണയായി ഇവിടങ്ങളിൽ കണ്ട് വരുന്നത് ചില സമയങ്ങളിൽ ഇത് കെട്ടി വെക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് തൈലം ഇട്ട് പുരട്ടി നല്ല രീതിയിൽ ടൈറ്റാക്കി കെട്ടി വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്